പ്ലീസ് ടെൽ ദ പോസിറ്റീവ് എക്സ്പ്പീരിയന്സ് യൂ ഹാഡ് വിത് യുവര് ഫസ്റ്റ് പ്രൊടക്റ്റ് എന്റെ ഫോണിനെക്കുറിച്ചാണെനിക്ക് പറയാനുള്ളത് ഫോണെന്ന് പറഞ്ഞാല് ഞാന് യൂസ് ചെയ്യുന്നത് ഞാന് ചൂസ് ചെയ്ത ഫോണ് ഐ ഫോണാണ് ഐ ഫോണിനെ സംബന്ധിച്ചോളം പറയാണെങ്കില് യൂസര് ഫ്രെണ്ടലിയാണ് ഏറ്റവും കൂടുതല് എനിക്ക് ഐ ഫോണില് ഇഷ്ട്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് അതാണ് ഒരാന്ഡ്രോയ്ഡ് ഞാനാണ്ട്രോയിഡ് യൂസ് ചെയ്ത ആളാണ് ഐ ഫോണ് യൂസ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാല് വളരെ ഐ ഫോണിന്റെ ഫീച്ചേസ്സായ്ക്കോട്ടെ അതിനെ ടച്ച് സെറ്റപ്പ് വരെ വളരെ നൈസാണ് ഐ ഫോണിനെ സംബന്ധിച്ച് ഐ ഫോണ് യൂസ് ചെയ്ത ഒരാളെ സമ്പന്ധിച്ചിടത്തോളം വേറൊരാണ്ട്രോയ്ടിലോട്ട് പോകാന്നൊള്ളന്നെ അദ്ദേഹത്തെ സമ്പന്ധിച്ചെടത്തോളം റിസ്ക്കിയാണ് കാരണം ഐ ഫോണെന്നു പറഞ്ഞാല് അത്ര യൂസര് ഫ്രെണ്ട്ലിയാണ് അതേപോലെ ക്യാമറ ക്ലാരിറ്റി ആണെങ്കിലും നല്ല നല്ല നല്ല വിഷന് നല്ല പിച്ചേഴ്സ്സ് നമുക്കെടുക്കാന് കഴിയും നല്ല വീഡിയോസ് നമുക്കെടുക്കാന് കഴിയും പിന്നെ ഐ ഫോണ് യൂസ് ചെയ്യണമെന്നുവച്ചാല് തേട്ടി റ്റൂ ജി ബി പിന്നെ വണ് ട്വന്റി എയ്റ്റ് ജി ബി ടൂ ഫിഫ്റ്റി ജി ബി അങ്ങനെ ജി ബികള് ഇൻ്റർ മെമ്മറീസ് കൂടുതലുള്ളതു നോക്കി എടുക്കുക എന്നാലേ നമുക്ക് അത് യൂസ്ഫുള് ആകുകയുള്ളു പിന്നെ അപ്ഡേഷന് വരുമ്പോള് അപ്ഡേഷന് കറക്റ്റ് ഫോളോ ചെയ്യുക ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഫോണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോട്ടൻറ്റ് ഐ ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഫീച്ചേഴ്സ് ആണെങ്കില്ത്തന്നെ കൂടുതല് സെക്യൂരിറ്റിയാണ് എന്നെ സമ്പന്ധിച്ചിടത്തോളം സെക്ക്യുറാണ് ഐ ഫോണെന്നുള്ളത് പിന്നെ വൈറസില് നിന്നാണെങ്കില്ത്തന്നെ എല്ലാത്തിന്നും ഒരു ഒരു പ്രൊട്ടെക്ഷനാണ് നമുക്ക് ഐ ഫോണ് യൂസ് ചെയ്യുക എന്നുള്ളത് പിന്നെ അതില് അത്ര തന്നെ മെയിനായിട്ട് മെയിനായിട്ട് യൂസര് ഫ്രെണ്ട്ലിയാണ് അതുപോലെതന്നെ ക്യാമറ വീഡിയോ ക്ലാരിറ്റി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ളത് പിന്നെ ഐ ഫോണിന്റെ ഫീച്ചേഴ്സായിക്കോട്ടെ ഐ ഫോണില് സപ്പോര്ട്ടായ ആപ്പുകളായിക്കോട്ടെ നമുക്ക് അപ്സ്റ്റോറില്നിന്ന് ഡൗണ്ലോഡ് ചെയ്യുമ്പോള് കറക്റ്റ് എല്ലാ രീതിയിലുള്ള ആപ്പും നമുക്കുണ്ട് പക്ഷെ അതൊക്കെ കൂടുതല് അഡ്വന്സായിട്ടുള്ള സെറ്റപ്പിലാണ് നമുക്ക് കിട്ടുത അതാണ് ഐ ഫോണെക്കുറിച്ച് പറയാനുള്ളത്